ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ സാർ ആ ഓക്കെ ഏഴ് പേരാണോ ആ ആ ഓക്കെ അപ്പോൾ സാർ എന്നത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മുപ്പത്തിയൊന്നാം തീയതി ആണല്ലേ നമുക്ക് മുപ്പത്തിയൊന്നാം തീയതിക്ക് വേറെ ഓട്ടം ഒന്നും വന്നിട്ടില്ല സാർ നമ്മൾ അപ്പോൾ അത് അറേഞ്ച് ചെയ്തുതരാൻ പറ്റും ആ വണ്ടി നമുക്കിപ്പം സെവൻ സീറ്റർ എർട്ടിഗ വരുന്നുണ്ട് ഇന്നോവ വരുന്നുണ്ട് ആ ക്രിസ്റ്റ വേണമെങ്കിൽ ക്രിസ്റ്റ ഉണ്ട് സാർ നോർമലും ഉണ്ട് ഏതാണ് വേണ്ടത് ക്രിസ്റ്റ ആണോ വേണ്ടത് ആ ഓക്കെ ക്രിസ്റ്റ അറേഞ്ച് ചെയ്യാം സാർ ഫോർച്യൂണറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കണോ

ഫോർച്യൂണർ ഇപ്പോൾ പെർ ഡേ സിക്സ് തൗസൻഡ് ആണ് സാർ വണ്ടീൻ്റെ റെന്റ് വരുന്നത്

ഡ്രൈവറുടെ എല്ലാം കൂടെ കൂറ്റിയിട്ട് ഒരു സെവൻ ഫിഫ്റ്റി ചെ സെവൻ ആൻഡ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് വരും ആ ഇന്നോവ ഒക്കെ ആവുമ്പം നമുക്ക് ഒരു ഫൈവ് ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡിന് ചെയ്യാം ആ ഇല്ല ടോട്ടൽ ആ അതായത് ഇന്നോവ ആവുമ്പം അവർ ഇത് തരുള്ളൂ ഇന്നോവ മതി അല്ലേ പിന്നെ നമ്മൾ ഇപ്പോൾ പെർ ഡേ നമുക്കൊരു ടു ഫിഫ്റ്റി കിലോമീറ്റർ വരെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ആ അതിന് മുകളിലേക്ക് ആവുമ്പം നമുക്ക് അഡീഷണൽ ചാർജ് വരും സാർ കുഴപ്പം ഇല്ലായിരിക്കും അല്ലേ ആ ഓക്കെ അത് സാർ ഇപ്പോൾ നോക്കേണ്ടി വരും കാരണം നമുക്ക് അങ്ങനെ ട്രിപ്പ് ഇപ്പോൾ വണ്ടിയുടേത് മാത്രമല്ലേ ഉള്ളൂ വേണമെങ്കിൽ ഞങ്ങൾ അവിടെ ഒന്ന് അന്വേഷിക്കാൻ ആരോടെങ്കിലും പറഞ്ഞ് നോക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല ആ ഓക്കെ സാർ ഇല്ല നമ്മൾ ഞങ്ങളുടേത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം

ആ ഓക്കെ സാർ ഞാൻ ആ പിന്നെ അയച്ചാൽ മതി ഞാൻ വന്നോളാം സാർ

ആ ഓക്കെ സാർ